കേരളത്തിന്റെ സാംസ്കാരിക സമൃദ്ധി ആവിഷ്കരിക്കാനും വികസിപ്പിക്കാനും ഒരുപാട് വ്യക്തികളും കൂട്ടായ്മകളും വലിയ സംഭാവനകള് തന്നെ നല്കിയിട്ടുണ്ട് അതിൽ പല ഭാഗത്തു നിന്നുള്ള ആളുകളുണ്ട് എഴുത്തുകാരുടെ കാര്യം എടുത്തു നോക്കിയാൽ തുഞ്ചത്ത് എഴുത്തച്ചനുണ്ട് നമ്മുടെ മലയാള ഭാഷയുടെ പിതാവെന്നറിയപ്പെടുന്ന ആളാണ് അദ്ദേഹം അദ്ദേഹം ആദ്ധ്യാത്മ രാമായണം കിളിപ്പാട്ട് അങ്ങനെ ഒരുപാട് നല്ല രചനകള് നമ്മുടെ സംസ്കാരത്തിനു വേണ്ടി നല്കീ അതുപോലെ തന്നെ മലയാള കവിതകളിൽ നവാഗ നവോദ്ധാനമുണ്ടാക്കിയ ഒരു മഹാ കവിയാണ് കുമാരനാശാന് പിന്നെ എം ടി വാസുദേവന്നായരുടെ മണിമുഴക്കം രണ്ടാമൂഴം എന്നീ നോവലുകളും മഹാ മലയാള സാഹിത്യത്തെ സമ്പന്നമാക്കിയ ചില രചനകളാണ് വള്ളത്തോള് നാരായണമേനോന് എന്ന അദ്ദേഹമാണ് കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ഇതുവഴി കഥകളീ മോഹിനിയാട്ടം അതുപോലെയുള്ള കേരളത്തിന്റെ പരബരാ പരമ്പരാഗത കലരൂപങ്ങളൊക്കെ സംരക്ഷിക്കുകയും വികസിപ്പിക്കുകയും ചെയ്തു പിന്നെ നമുക്കൊരുപാട് സാമുഹിക പരിഷ്കര്ത്താക്കളുമുണ്ട് ശ്രീനാരായണ ഗുരൂ അയ്യങ്കാളീ എന്നിവര് സമൂഹത്തിന്റെ പരിഷ്കാരങ്ങള് നിലനിര്ത്തുന്നതിൽ വലിയ പങ്കു വഹിച്ചിട്ടുണ്ട് പിന്നെ കലാകാരന്മാരുടെ കാര്യമെടുത്തു നോക്കിയാല് കേളു നമ്പ്യാര് കുഞ്ചന് നമ്പ്യാര് ചാക്യാര് കുഞ്ചൻ നമ്പ്യാര് അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ കലാ കലകളെ നിലര്ത്ത് നി നിലനിര്ത്തിയേല് പങ്കുവഹിച്ചവരാണ് പിന്നേ എടപ്പാട് ഭരതന് വൈലോപ്പിള്ളി ശ്രീധരമേനോന് അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ സംസ്കാരത്തിലെ സാഹിത്യത്തിലും അങ്ങനെ പല പല ഭാഗ വിഭാഗങ്ങളിലും ഒരുപാട് നല്ല സംഭാവനകള് കാഴ്ചവെച്ചവരായിട്ട് പിന്നേ നൂറ്റാണ്ടുകള്ക്കു മുമ്പ് തൃശ്ശൂര്പ്പൂരം ഒക്കെ തുടങ്ങിവെച്ച ശക്തന് തമ്പുരാന് അദ്ദേഹം നമ്മുടെ നാടിന്റെ സംസ്കാരത്തിലേക്കൊക്കെ ഒരു വലിയ പങ്കു തന്നെ വഹിച്ചിട്ടുണ്ട് തൃശ്ശൂര്പ്പൂരമെന്നാല് ലോക പ്രസിദ്ധമായൊരു നമ്മുടെ കാ നാടിന്റെ സംസ്കാരത്തെത്തന്നെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ആഘോഷമാണ് അപ്പോൾ അത് അതിന്റെ ഒരു വികസനത്തിനു വലിയൊരു പങ്ക് വഹിച്ച ആളാണ് ശക്തന് തമ്പുരാന് അതുപോലെ ഒരുപാട് സ്ഥാപനങ്ങളും കൂട്ടായ്മകളും ഉണ്ട് നമ്മുടെ സംസ്ഥാനം സംസ്ഥാനത്തിന്റെ സംസ്കാരം നിലനിര്ത്തുന്നതിനായിട്ട് കേരള കലാമണ്ഡലം ഇതിലൊരു വലിയ പങ്ക് വഹിക്കുന്ന ഒരൂ സ്ഥാപനമാണ്